ഉപജീവന മാർഗ്ഗം വൈദ്യുതിയെ ആശ്രയിക്കുന്നുണ്ടോ എന്നു ചോദിച്ചാൽ എയ് ഇല്ല ഉപജീവന മാർഗം അങ്ങനെ വൈദ്യുതിയെ ആശ്രയിക്കുന്നൊന്നുമില്ല കാരണം ഞങ്ങടെ ഉപജീവന മാർഗമെന്നു പറയുന്നത് കൃഷിയാണ് കൃഷിക്കകത്ത് വൈദ്യുതിയുടെ അങ്ങനെ വലിയ ആവശ്യങ്ങൾ അങ്ങനെയൊന്നും വരാറില്ല വൈദ്യുതിയെപ്പറ്റി അങ്ങനെ വരാറില്ല അതുപോലെ തന്നെ വൈദ്യുതി അങ്ങനെ ആശ്രയിക്കുന്നില്ല വൈദ്യുതി അങ്ങനുള്ള വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ വൈദ്യുതി മുടങ്ങുന്ന സമയത്താണെങ്കിൽ അത് നമുക്ക് ഇപ്പോള് വെള്ളം വെള്ളം ഒന്ന് മോട്ടോര് കറന്റ് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കത്തില്ല അത് ഭയങ്കരം ബുദ്ധിമുട്ടാണ് ആ സമയത്ത് അതുപോലെ തന്നെ

വൈദ്യുതി മുടങ്ങുമ്പോൾ വെളിച്ചത്തിലുള്ള മറ്റു വഴികൾ എന്തൊക്കെയാണെന്നു ചോദിച്ചാൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ഞങ്ങള് സോളാർ ലൈറ്റുണ്ട് സോളാറുണ്ട് സോളാറിൻ്റെ ഒരു ലൈറ്റുണ്ട് ആ ലൈറ്റുണ്ട് അതുപോലെതന്നെ മെഴുകുതിരി അങ്ങനത്തെ ആ വെളിച്ചമൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ആളുകൾക്ക് ഇവിടെ ഇൻവെർട്ടർ ഉണ്ടോ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ വീട്ടിലിപ്പോള് ഇൻവെർട്ടറുണ്ട് അത് വേറൊരാവശ്യത്തിനു വേണ്ടി വാങ്ങിച്ചതാണ് ഇൻവെർട്ടറുണ്ട് അതാണിപ്പോള് ഉപയോഗിക്കാറുള്ളത് ഇന്വെര്ട്ടര് കുറച്ചു നാള് അതായത് ഒരു അഞ്ചാറു മാസമേ ആയിട്ടുള്ളു അതിനുമുന്പു വരെ ഇൻവെര്ട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കറണ്ട് പോയാല് പോയതായിരുന്നു ഇപ്പോഴാണ് ഇപ്പോള് കുറച്ച് ഒരു അഞ്ചാറു മാസമായി ഇൻവെർട്ടര് ഒക്കെ വാങ്ങിച്ചു അതു വേറൊരു ആവശ്യത്തിനു വേണ്ടി വാങ്ങിച്ചതാണ് അതുപോലെതന്നെ ഈ ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം പ്രധാനമായി കൃഷിയെ ആശ്രയിച്ചാണിരിക്കുന്നത് വൈദ്യുതി ഇപ്പോള് വൈദ്യതി അത് വൈദ്യുതിയും വൈദ്യുതി ഇല്ലായ്മയും അതു കൃഷിയെ ബാധിക്കും കാരണം ഈ വെയിലായ വെയിലുള്ള സമയത്ത് വൈദ്യുതിയെ ആശ്രയിച്ചാണ് നമ്മളിരിക്കുന്നത് കാരണം വെള്ളമടിക്കണം വെള്ളമടിക്കുന്നത് മറ്റേ ഇതുണ്ടെങ്കിലേ വൈദ്യുതി ഉണ്ടെങ്കില് അത് കറൻ്റുണ്ടെങ്കില് മാത്രമേ വെള്ളമടിക്കാനായിട്ട് ഈ ഏലത്തിന് ഞങ്ങള്ക്ക് ഏലമാണുള്ളത് ഏലത്തിനു വെള്ളം അടിക്കണമെങ്കിൽ വൈദ്യുതി വേണം കറണ്ട് വേണം കറണ്ട് വളരെ അത്യാവശ്യമാണ് ഈ ഏലം പോലുള്ള ചെടികൾക്ക് ഇത് അത്